ആ ചേട്ടാ ആ നമുക്ക് കുറച്ച് ഒരു പുതിയ വീട് ഹൗസ് വാമിംഗിനാണ് അപ്പോൾ കുറച്ച് ഫർണിച്ചറ് വേണായിരുന്നു

നമുക്ക് ഇപ്പം ഒരു സോഫ വേണം ഒര് എൽ ഷേപ്പിൽ ഉള്ള പുതിയ മോഡല് സോഫ ഒരെണ്ണം വേണം കോർണർ അല്ലെ പിന്നെ നമുക്ക് ഒരു ഡൈനിംഗ് ടേബിള് വേണം ഒര് ആറ് ചെയറിൻ്റെ ആ അതില് ഗ്ലാസ്സിൻ്റ വേണം മുകളില് ഗ്ലാസ്സും തേക്കിൻ്റ ഫ്രെയിമും ആ പിന്നെ മരത്തിൻ്റെ തന്നെ ചെയറും കുഷ്യൻ വേണ്ട മരത്തിൻ്റെ തന്നെ ഫുൾ മരത്തിൻ്റെ തന്നെ എല്ലം ചെയറ് ആ കുഷ്യൻ വേണ്ടാത്ത ഒര് ആറ് ചെയറ് പിന്നെ നമുക്ക് ഒരു അലം ആ കുഴപ്പം ഇല്ല നമുക്ക് ഇപ്പം ഒരു സോഫ ഒര് മുപ്പത് ഉർപ്യ ഉള്ളില് മതി സോഫ എൽ ഷേപ്പ് മുപ്പത് ഉർപ്യ മാക്സിമം അത് ഒര് ടേബിള് ഒരു ഇരുപത് രൂപ അടുത്ത് ഇരുപതിനായിരം രൂപ അടുത്തുള്ള ഒര് ടേബിള് ആറ് ചെയർ ഉള്ള ഗ്ലാസ്സ് ഉണ്ടല്ലോ അപ്പം റേറ്റ് കമ്മി ആയിരിക്കുമല്ലൊ ആ പിന്നെ നമുക്ക് ഒര് അലമാര വേണം മറ്റെ പുതിയ ആ പുതിയ മോഡല് അത് ആ മറ്റെ ഷോക്കേസ് ആ റാക്ക് റാക്ക് കബോർഡ് കബോർഡ് ആയിട്ടാണ് നമുക്ക് അത് ആ മൂൺ ടൈപ്പ് മതി ആ കട്ടിൽ ഒരെണ്ണം വേണം കട്ടില് നമുക്ക് ഈട്ടീടെ വേണം നല്ല ഫ്രെയിമ് ഒക്കെ ഉള്ള ഫാമിലി കോട്ട് ആ അതെ ഇരുപത്തേഴ് അഞ്ഞൂറ് അല്ലെ ആ ആ എത്ര സീറ്റിൻ്റയാണ് ഇത് അത് മൊത്തത്തിൽ അഞ്ച് സീറ്റ് വരുന്നത് ആണോ

ഓ ആ ഓക്കെ ഓക്കെ ആ മനസ്സിലായി ആ അപ്പം ഇതിന് ഇരുപത്തേഴ് എണ്ണൂറ് അല്ലെ ആ തേക്കിൻ്റ ഫ്രെയിമില് ഗ്ലാസ്സ് വരുന്നത് മുകളില് ഗ്ലാസ്സ് ആറ് ചെയറ് മരത്തിൻ്റെ തന്നെ ആ ചെയറ് എടുക്കാല്ലേ ആ ഓക്കെ ആ നമുക്ക് ഇപ്പം ഈ ഇടയിൽ കൂടെ എല്ലം ഫ്രെയിമ് പോല ഇട്ടിട്ട് നമുക്ക് ഇടയില് മറ്റെ കല്ല് സ്റ്റോൺ ഒക്കെ വെക്കണം

റൗണ്ട് ടേബിൾ ആണോ സ്ക്വയർ ആണോ നമുക്ക് റൗണ്ട് ആണ് വേണ്ടത്

അലമാര മറ്റെ ഫുൾ കപ്ബോർഡ് പോലത്തെ ഒര് നാല് കള്ളി വരുന്നത് അതിന് ഉള്ള ഒര് സേഫ് ലോക്കും വേണം ഒര് ലോക്കറും വേണം ആ എല്ലാത്തിലും എല്ലാ ബോർഡ് എല്ലാ ബോർഡിലും ലോക്ക് വേണം

അതിന് ഒരു പത്ത് ദിവസം ഉണ്ട്

ഓക്കെ നോക്കാം കട്ടില് ആ നമുക്ക് ഈട്ടിടെ വേണം

ഞങ്ങള് നോക്കാനാ ആ ഡിസ്കൗണ്ട് ചെയ്യാം ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ ആ ശരി ആ പിന്നെ ഇത് നിങ്ങള് വീട്ടിൽ കൊണ്ടത്തരില്ലെ എല്ലാം കൂടെ ആ ഓക്കെ ആ തരാം അഡ്വാൻസ് എന്തരേലും വേണോ അഡ്വാൻസ്

അല്ല നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ കൊണ്ട് അതാകുമ്പോൾ ഡെലിവറി കുറച്ച് കുറവ് വരുമല്ലൊ ആ പോയി നോക്കാം നമുക്ക് നോക്കാം